ഹലോ ഇത് ടാക്സി സർവീസല്ലേ ഞങ്ങള് അടുത്തയാഴ്ച ഒരു വിനോദസഞ്ചാരയാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു മൂന്നാറിലേക്ക് അപ്പോള് അതിൻ്റെ റെയ്റ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വിളിച്ചതാണ് അപ്പോള് ഞങ്ങള് ആക്ച്വലി നാലുപേരായിട്ട് പോകാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് അപ്പോള് ഒരു കൊച്ചു വണ്ടി എടുത്താല് മതിയല്ലോ എന്നുള്ള രീതിയില് അപ്പോള് പിന്നെ ആൾക്കാര് കൂടി ഇപ്പോള് ആറുപേരായി അപ്പോള് ആറുപേർക്കുള്ള വണ്ടിയുണ്ടെങ്കിൽ ഒരു വിവരം അറിയാനായിട്ടായിരുന്നു ഏതൊക്കെ വണ്ടികളാണ് നിങ്ങൾക്ക് അവൈലബിലായിട്ടുള്ളത് അപ്പോള് ഞങ്ങള്ക്ക് അതും അറിയണം പിന്നെ നാലുപേരിരിക്കാനുള്ള വണ്ടിക്ക് ഡ്രൈവറെയും കൂടി ചേർത്ത് എല്ലാ ചെലവും ചേർത്ത് എത്ര രൂപ മൊത്തമാകുമെന്നറിഞ്ഞാൽ കൊള്ളാം അതേപോലെ ആറുപേർക്ക് ഇരിക്കാനുള്ള വണ്ടിയിൽ ഡ്രൈവറെയും കൂടി ചേർത്ത് ഡ്രൈവർക്കുള്ള ഫുഡും ഡ്രൈവറുടെ താമസവും എല്ലാംകൂടി ചേർത്ത് എത്ര രൂപയാവുമെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഞങ്ങളുടെ മൊത്തം യാത്ര ഏകദേശം ഒരാഴ്ചയടുപ്പിച്ചുണ്ട് അപ്പോള് ഒരാഴ്ചയിൽ വണ്ടി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമാണ് ഞങ്ങൾക്ക് സ്ഥലം മൊത്തം ചുറ്റിക്കറങ്ങി കാണാനും എല്ലായിടത്തും കൊണ്ടുപോവുകയും വേണം തിരിച്ച് ദിവസവും ഞങ്ങളുടെ ഹോട്ടലിൽ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുകയും വേണം അവരുടെ കൂടെ വരുന്ന ഡ്രൈവറുടെ താമസവും ഭക്ഷണവുമെല്ലാം ഞങ്ങളേറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ അതും എല്ലാം ചേർത്ത് എത്ര രൂപ വണ്ടിക്കൂലി വരും വണ്ടിയുടെ ഡീസലിൻ്റെയോ അഥവാ പെട്രോളിൻ്റെയോ വില എല്ലാംകൂടി ചേർത്ത് എത്ര രൂപ വരുമെന്ന് ഒന്ന് അറിയിച്ചാൽ കൊള്ളാം ഞങ്ങളെ ഇവിടെ കൊല്ലത്തുനിന്ന് പിക്ക് ചെയ്ത് മൂന്നാറില് ഡ്രോപ്പ് ചെയ്ത് മൂന്നാർ കറങ്ങി മൂന്നാറില്നിന്ന് തിരിച്ച് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ച് കൊല്ലത്ത് ഡ്രോപ്പ് ചെയ്യണം അപ്പോൾ ഇത്രയും കൂടി വരുമ്പോൾ നല്ല സുഖമായിട്ട് പോവാൻ പറ്റിയ വയസ്സായവരൊക്കെ ഉള്ളതാണ് അപ്പോള് നല്ല സുഖമായിട്ട് പോവാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെ അത്യാവശ്യമാണ് അപ്പോള് അങ്ങനെ ഒരു വണ്ടി ഏതാണെന്ന് ഒന്ന് സജെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ